ആ ഹലോ ആരാണ് ആ അതെ അതെ അതെ ആ ആ ഓക്കെ സാർ താങ്കളുടെ പേര് പറയൂ അതുൽ ഓക്കെ അതുൽ ആണോ അഖിൽ ആണോ സാർ

ഓക്കെ നോക്കുന്നുണ്ട് സാർ ചെക്ക് ചെയ്യട്ടെ ആ സാർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്യാം സാർ അതെ സാർ അതെ ഒര് അര മണിക്കൂർ ട്രാവൽ ഉണ്ട് സാർ അങ്ങോട്ടേക്ക് സാറിൻ്റെ സ്ഥലത്തേക്ക് ആ സാറേ ട്രാഫിക് ബ്ലോക്കും അങ്ങനെ ഗതാഗത കുരുക്കെല്ലാം വരുമ്പോൾ അര മണിക്കൂർ എടുക്കും സാർ അതെ സാർ സാറൊന്ന് മനസ്സിലാക്കുക ഞാൻ സാറിൻ്റെ ഡെലിവറി മുൻപേ പിക്ക് ചെയ്തിരുന്നു നേരത്തെ തന്നെ പിക്ക് ചെയ്തിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ് സാർ ആ സാറിനെ ഞാൻ വിളിച്ചുകൊണ്ട് ഇരുന്നതാണ് സാർ സാറ് കോള് കിട്ടിയില്ല ഞാൻ പറയാൻ വരുവായിരുന്നു ലേറ്റ് ആവും ഒര് അഞ്ച് മിനിറ്റ് ലേറ്റ് ആകുമെന്ന് ആ അങ്ങോട്ട് കോള് കണക്ട് ആയില്ല സാർ അതുകൊണ്ടാണ് എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്തായാലും എത്തും സാർ അല്ലെങ്കിൽ റീഫണ്ട് തരാൻ ഞാൻ തയ്യാറാണ് സാർ

അത് ആപ്പിൻ്റെ സെർവറിൻ്റെ തന്നെ ഗ്ലിച്ച് ആയിരിക്കും സാർ ആ അതെ സാർ ഞാൻ അതില് ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് അതുകൊണ്ട് ആ സാർ കുറെ ഡെലിവറി ഉള്ളത് കൊണ്ട് തന്നെ കോള് കണക്ട് ആവാത്തത് ആയിരിക്കും എന്തായാലും ഞാൻ ഒര് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താം സാർ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇമ്പോർട്ടൻറ്റ് ആണ് സാർ അതാ ഞാൻ പറയുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് എന്തായാലും അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിയില്ലെങ്കിൽ സാറിന് റീഫണ്ട് ഫെയർ തരാൻ ഞാൻ തയ്യാറാണ് സാർ അതെ സാർ മനസ്സിലാവും സാർ അത് ആണ് പറഞ്ഞത് ഗതാഗത കുരുക്കുകളും ട്രാഫിക്കുകളും ഉള്ളത് കൊണ്ട് അങ്ങനെ എത്താൻ പറ്റിയില്ല സാർ ഞാൻ എന്തായാലും ഒര് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പം തന്നെ എത്താം സാർ ഇപ്പം തന്നെ ഒര് അഞ്ച് മിനിറ്റ് സാർ വെയിറ്റ് ചെയ്യ് ആ സാർ ഓക്കെ സാർ ഞാൻ അത് എന്തായാലും ആ ഞാൻ എന്തായാലും എത്തിയില്ലെങ്കിൽ ഞാൻ എന്തായാലും റീഫണ്ട് തരാം സാർ അഞ്ച് മിനിറ്റ് കാത്ത് നിൽക്കുക സാർ ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല സാർ എൻ്റെ ഭാഗത്ത് ഉള്ള തെറ്റ് ആണ് ആ ഓക്കെ ഓക്കെ ഓക്കെ ആണ് സാർ സാർ

ആ തീർച്ചയായും തീർച്ചയായും സാർ രണ്ടരയ്ക്കുള്ളിൽ എന്തായാലും എത്തും അപ്പോൾ ഓക്കെ സാർ ഓക്കെ സാർ താങ്ക്യൂ താങ്ക്യൂ